ആദ്യം തന്നെ നമ്മൾ ഡെങ്കി മലേറിയ എന്നീ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വീടും വീടിൻ്റെ പരിസരം ശുചീകരിക്കണം ഫസ്റ്റ് ടൈമ് നമ്മൾ വീടിന് ചുറ്റും മാലിന്യ വസ്തുക്കൾ സ വേസ്റ്റ് ചാടുന്നതും പിന്നെ വേസ്റ്റ് കൊണ്ട് വെള്ളം നിറഞ്ഞ് പിന്നെ അതിൽ കൊതുക് ഇരുന്നിട്ട് കൊതുക് മുട്ട വെച്ചിട്ട് കൊതുക് മുട്ട വെക്കുന്നതും അത് മുട്ട വെക്കുന്ന രീതി അത് നമ്മൾ തീർച്ചയായും ഉപേക്ഷിക്കണമെന്ന് എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റും വീടും വീട്ടിൻ്റെ ചുറ്റുമുള്ള സ്ഥലം അടിച്ചു വൃത്തിയാക്കി വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നോക്കണം പിന്നെ കുട്ടികൾക്കു അങ്ങനെ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ പിന്നെ ഇത് നമ്മൾ ഡെങ്കി മലേറിയ എല്ലാം വന്നാൽ വന്നാൽ ഇപ്പോൾ കൊതുക് തൊട്ടിട്ടുള്ള സമ്പ്രദമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗമാണ് അപ്പോൾ അത് വന്ന് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിസരം നമ്മൾ വീടും വീടിൻ്റെ ചുറ്റും പിന്നെ ആ ഒരു ആഴ്ചയിലൊരിക്ക എല്ലാവരും കൂടി കൂടിയിട്ട് ഫുള്ള് ചുറ്റുമുള്ള റോഡും പരിസരം ഓറ് ഒരു ആ ഏരിയലുള്ള റോഡും പരിസരവുമെല്ലാം ക്ലീനാക്കുക വൃത്തിയാക്കുക രോഗം വരാതെ പോലെ നോക്കുക പിന്നെ വീട്ടിൻ്റെ ഉള്ളിലന്നെ നമ്മൾ ഇങ്ങനെ എന്ത് അടിച്ചു കൂട്ടീട്ടുള്ള വേസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിലിപ്പോൾ ചില ആൾക്കാർക്കിപ്പോൾ ഇങ്ങനെ വാടക വീടിലായിരിക്കും താമസം അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറമേ എന്ത് വേസ്റ്റ് ചാടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോൾ ഓറ് ഉള്ളിൽ ബക്കറ്റിൽ അത് സ്റ്റോറ് ചെയ്തു വെക്കും അപ്പം അതിന് അതിന് ഈ വേസ്റ്റ് വേസ്റ്റ് ഇതായിട്ട് അതിൽ കൊതുക് ഇരുന്നിട്ട് പിന്നെ കൊതുക് മാത്രമല്ല അതിൽ ഈച്ച വരെ ഇരുന്നിട്ട് ഈച്ച പൊതിഞ്ഞിട്ട് പിന്നെ ഈച്ച് ഈച്ചനെ സംബന്ധിച്ചിട്ട് ഒന്നും വരാനില്ല എന്നെങ്കിൽ അത് വയറ് വയറ് സംബന്ധായിട്ട് സൂക്കേടായിട്ട് മാറും ആ അപ്പോൾ അതിലും അപ്പോൾ അങ്ങനത്തെയെല്ലാം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് ശുചീകരിക്കുക പിന്നെ കുട്ടികൾക്ക് മെയിനായി നമ്മൾ കുട്ടികളെ നല്ലോണം സൂക്ഷിക്കുക ആ പുറത്ത് ഉള്ളിൽ പുറമേ കളിക്കാൻ പോയിട്ട് വന്നിട്ട് ഉള്ളിൽ കയറുമ്പോൾ കൈ കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകി ഉള്ളിൽ വിടുക പിന്നെ കുട്ടികൾക്കങ്ങനെ ഇത് കൊതുക് കടിക്കാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് കൊതു വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊതുക് തിരി വെക്കാനും കഴിയല്ല പിള്ളേർക്കത് സൈഡ് എഫ് സൈഡ് എഫെക്റ്റാണ് ശ്വാസം മുട്ട് ബുദ്ധിമുട്ട് എല്ലാം വരും നല്ലോണം ബുദ്ധിമുട്ടാകും അപ്പോൾ കൊതുകും വരാതെ പോലെ തടയുക കൊതുക് വീട്ടിൻ്റെ ഉള്ളിൽ കൊതുകുതിരി വെക്കാതെ തന്നെ പിള്ളെർക്ക് നല്ലൊരു ശുചിത്വം ശുചീകരണം ആക്കി കൊടുക്കുക വീട്ടിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നമ്മൾ എല്ലാവരും നല്ല വൃത്തിക്ക് നല്ല ഒരു നല്ലൊരു നമ്മളെ ചുറ്റുപാടും നമ്മളെ വീടും നല്ല അടിച്ചൊതുക്കി നല്ല വൃത്തിയോടെ വെക്കുക പിന്നെ ഇത് വരാതിരിക്കാൻ നമുക്ക് ആവുന്നത്ര വിധം നമ്മൾ മെയിനായി നോക്കേണ്ടത് നമ്മളെ ഇത് ശുചീകരണമാണ് നമ്മൾ എത്ര വൃത്തിക്ക് അടുക്കി ഒതുക്കിട്ട് നമ്മൾ വീടും പരിസരോം വെച്ച് അത്ര നമ്മളാരോഗ്യത്തിന് നല്ലത് പിന്നെ പനി ജലദോഷം അങ്ങനത്തെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലുള്ളത് തന്നെ തുളസിയില അങ്ങനത്തെ എല്ലാം ഉപയോഗിച്ച് കഷായം വെച്ച് കുടിക്കുക പിന്നെ ഡെങ്കി ഡെങ്കിപ്പനി മലേറിയ എല്ലാം വരുന്ന സമയത്ത് പിന്നെ അതന്നെ നാടൻ മരുന്ന് നാടൻ മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റോട്ടുള്ള തുളസി തുളസിയില അത് കഫക്കെട്ടിന് തുളസിയില പിന്നെ ചൂട് വെളത്തിലിട്ടിട്ട് നല്ല പാങ്ങിൽ തിളപ്പിച്ചിട്ട് ആവിപിടിച്ച് കൊടുക്കുക പിള്ളെർക്ക് പിന്നെ ദിവസോം പിള്ളേരു പുറമേ സ്കൂളിലെല്ലാം പോയി വരുന്ന സമയത്ത് പിന്നെ പിള്ളെർക്ക് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക എന്ത് ആവി ആവി എടുത്തു കൊടുക്കുക ചെറിയ ഒരു ജലദോഷമോ ചെറിയ ഒരു ചുമയോ വന്നു കയിഞ്ഞാൽ പെന്നെ പിന്നെ പിള്ളേർക്ക് നമ്മൾ എന്താക്കാൻ ആവീ ചൂടുവെളളം തിളപ്പിക്കുക തുളസിയില ഇടുക ആവി എടുക്കുക എടുത്തിട്ട് പിള്ളേരെ രണ്ടീസത്തിനൊരിക്ക ആഴ്ചയിലൊരിക്ക നമുക്ക് പിള്ളെർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ പിള്ളെർക്ക് അതിന് അതിൻ്റെ അത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ പിള്ളെർക്ക് എന്നല്ല അത് മുതിർന്നവർക്കാകട്ടെ ആർക്ക് എങ്കിലും അതിൻ്റെ അത്ര നല്ലതായിട്ട് ഒന്നുമില്ല പിന്നെ അതിൻ്റെ അത്ര നല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്ര സുരക്ഷിതം നമുക്ക് പുറമേ പോയാലും കിട്ടില്ല അപ്പോൾ പുറമേ പോയി വന്ന് അങ്ങനന്നെ കൈ കഴുകുക പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ കൈ കഴുകിട്ട് നമ്മൾ വൃത്തിയായി കുളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുക പിന്നെ വീടും വീടിൻ്റെ ചുറ്റും ആവുന്നത്ര ദിവസം ദിവസം അടിച്ച് അടിച്ച് പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ പോലെ നോക്കുക മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മയ മയവെള്ളം മഴ വെള്ളം ഇല്ലാത്ത സമയത്ത് പൈപ്പ് പൈപ്പ് ലീക്കായിട്ട് ബ്ലോക്ക് ആകുന്നതും ബ്ലോക്ക് ആകുന്ന വഴിയിൽ ചിരട്ട കുറെ ചിരട്ടകളെല്ലാം ഉണ്ടാവൽ ചിരട്ടയിലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് കൊതു കൂടുന്നതും നമ്മൾ തടയണം കൊതു കൊതു കൂടിയിട്ട് അതിൽ കൊതു മുട്ട വെക്കുകയും മുട്ട ഉടഞ്ഞിട്ട് കൊതു ആകുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതു നല്ലോണം സൂക്ഷിക്കണം എവിടെങ്കിലും വേസ്റ്റ് വെളളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ആ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയണം വെള്ളി വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാതെ പോലെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള മരുന്ന് നമുക്ക് നമുക്ക് ഹോസ്പിറ്റൽ അല്ലാതെ വീട്ടിലന്നെ നമുക്ക് എത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റോ അത്ര ചെയ്യുക പിന്നെ പനി കൊതുക് മൂലം വരുന്ന പനി തടയാന് നമ്മൾ ആ വീടും ചുറ്റും പരിസരം ക്ലീന് വൃത്തിയാക്കുക പിന്നെ പുറത്ത് പോയിട്ട് വന്നിട്ട് കാ കൈ നല്ല നല്ല വൃത്തിക്ക് കൈയും കഴുകി കുളിച്ച് നല്ല വൃത്തിയോടെ ഇരിക്കുക പിന്നെ ആ ആ ആ കൊതുക് വീട്ടിൻ്റെ ഉള്ളിലങ്ങനെ ഉള്ള വേസ്റ്റ് എല്ലാം കൊണ്ടു പോകുക പുറമേ കൊണ്ടു പോയി നമ്മൾ വേസ്റ്റ് ഒക്കെ ഒരു സൈഡി കൂട്ടി വെക്കുക എന്താ പറഞ്ഞാൽ അങ്ങനല്ല പ്ലാസ്റ്റിക് കവർ അത് ഇത് എല്ലാം ഇതാക്കീട്ട് ബാക്കിയുള്ളത് എല്ലാ നമ്മൾ ഏതെങ്കി ഒരു ദിവസം ഫുള്ളായിട്ട് കത്തിച്ചിട്ട് എവിടെ നശിപ്പിക്കുക പിന്നെ അതേ സ്ഥലത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ആക്കി കൊടുക്കാൻ പാ ആക്കികൊടുക്കാനേ പാടില്ല നമ്മളെ ചുറ്റും ഫുള്ളും നമ്മ ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കുന്നതും പിന്നെ അതിൽ കൊതുക് ഉണ്ടായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ഒരിക്കലും നമ്മൾ ചുറ്റുപാട് എവിടെയും നമ്മുടെ വീട്ടിൽ എന്നല്ല നമ്മുടെ ചുറ്റുപാട് എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും ഒരു ഒന്നില്ലെങ്കിൽ നമ്മൾ ഫുള്ള് ക്ലീനാക്കി അടിച്ചു വൃത്തിയാക്കി വെളളം കെട്ടി നിൽക്കാത്ത പോലെ ആയാൽ അങ്ങനന്നെ മതി ആ നമ്മളെല്ലാ സൂക്കേടും നമുക്ക് രോഗം വരുന്നത് തന്നെ തടയാം പിന്നെ ഡെങ്കി മലേറിയ പോലുള്ള രോഗം ഒരിക്കലും വരില്ല പിന്നെ ചുറ്റോടുള്ള ചുറ്റ് പരിസരം എല്ലാവരും ഒരു നാലഞ്ച് വീടുണ്ടെങ്കിൽ ആ നാലഞ്ച് വീട്ടുകാർ ഒന്നിച്ച് കൂടി അന്നത്തെ ഒരു ദിവസം ഒന്നിച്ച് കൂടുക എന്നിട്ട് അടിക്കാ വേസ്റ്റ് എല്ലാം കൊണ്ടോയിട്ട് കത്തിക്കുക വെള്ളം കെട്ടി നിക്ക നിൽക്കാതെ വിധം വേസ്റ്റ് ഒന്നും കെട്ടി നിൽക്കാതെ വിധം നമ്മൾ ചെയ്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും